നിങ്ങളുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ പ്രാദേശിക സാമ്പദ് വ്യവസ്ഥയെ പിന്തുണക്കുന്ന കാര്യത്തെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ അവരവരുടെ നിലനിൽപ്പിനെ പറ്റിയാണ് കൂടുതലായിട്ടും ചിന്തിക്കാറുള്ളത് അല്ലാതെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രത്യേകിച്ചൊന്നും അവര് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ വളർച്ച കാരണമായി പുതിയ തൊഴിലവസരങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോള് മാധ്യമ ഫീൽഡിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പഠിച്ച് വരുന്നയാൾക്കാർക്ക് ധാരാളം തൊഴിലവസരങ്ങളിപ്പോൾ ചാനലുകളൊക്കെ ആണേലും ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട് അവയിൽ ജോലി ചെയ്യാൻ ധാരാളം ജേർണലിസ്റ്റുകളെയും ഈ എല്ലാവരെയും ആവശ്യമുണ്ട് അങ്ങനെ ആ രീതിയിൽ പഠിച്ചുവരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിനോട് ഒരു കഴിവുള്ള ആൾക്കാർ ഇതിനെ വാർത്തകളെ എങ്ങനെ മറ്റുള്ളവരിലേക്ക് രസകരമായി എത്തിക്കാം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ എന്തെങ്കിലും വാർത്തകളുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു നല്ല കാര്യമാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് കുറേയൊക്കേ അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റുണ്ടെങ്കിൽ പോലും അവര് ജനങ്ങൾ ആനുകാലികമായെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അവര് തൊഴിലവസരങ്ങൾ സൃഷ്ട്ടിക്കാമെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും പേപ്പറില് അഡ്വെർടൈസ്മെന്റുകള് കൊടുക്കുന്നു തൊഴിലവസരങ്ങളെ പറ്റി പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ചില പുതിയ ഇതെന്നു പറഞ്ഞാല് ഓരോ ദിവസവും ഇപ്പോള് പുതിയ തൊഴിലവസരങ്ങൾക്കനുസരിച്ച് പഠിക്കുക ഏതൊക്കെ എന്തൊക്കെ പഠിക്കണം ഏതൊക്കെ കോഴ്സുകളുണ്ട് എന്നുള്ള രീതിയിൽ കൊള്ളാം നല്ല രീതിയിലുള്ള അഡ്വൈസുകള് അല്ലേൽ അതിനകത്ത് പറ്റുന്ന വാർത്തകളൊക്കെ ധാരാളമായിട്ടിപ്പോള് കൊടുക്കാറുണ്ട് അങ്ങനെ അത് കാന്ഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല തൊഴിൽ ദായകരെ തൊഴിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാർക്ക് തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളവസരങ്ങളവരുണ്ടാക്കിക്കൊടുക്കുന്നു അത് ജനങ്ങൾക്ക് അത് അനുസരിച്ച് കണ്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് തൊഴിൽ നേടിയെടുക്കാന്നുള്ളതവരുടെ കാര്യമാണ് അല്ലാതെ പ്രത്യേകിച്ച് വേറെയൊന്നും അതിനകത്ത് വരുന്നില്ല സംസ്ഥാനത്ത് മാധ്യമങ്ങൾ സമ്പദ്വ്യവസ്ഥയെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൂന്നെനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല സമ്പദ്വ്യവസ്ഥയിൽ ഇവരുടെ റോളെന്തെങ്കിലും ഉണ്ടോ എന്നും എനിക്ക് അത്ര വലിയ പിടിയില്ല മാധ്യമങ്ങളുടെ വളർച്ച കാരണമായി ലഭ്യമായ തൊഴിലവസരങ്ങൾ ധാരാളം സൃഷ്ടിക്കുന്നുണ്ട് തൊഴിലവസരങ്ങൾ ഈ നമ്മുടെ എക്കണോമിയിൽ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് ജനങ്ങളിൽ അല്ലെങ്കില് അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരിലേക്ക് അവരാ ന്യൂസുകളെത്തിക്കുന്നു അതനുസരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അതനുസരിച്ച് ഓരോ ജീവിത വിജയത്തിനാവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഇപ്പോഴത്തെ ഉദ്യോഗാർത്ഥികൾക്കൊരവസരമുണ്ടാക്കുന്നുണ്ട് അത് ആ രീതിയിൽ പേപ്പറുകൾ അല്ലെങ്കില് മാധ്യമങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്